ഹലോ ഇത് കോർപ്പറേഷനല്ലേ എന്റെ മകളുടെ ജനന സർട്ടിഫിക്കറ്റില് തിരുത്തല് വരുത്തേണ്ടിയിരുന്നു അതില് എന്താണ് ജനിച്ച ഹോസ്പിറ്റലില് പേരു തെറ്റായിട്ടാണു കൊടുത്തിട്ടുള്ളത് അപ്പോള് അതു തിരുത്താൻ വേണ്ടിയായിരുന്നു അതിന് എന്തൊക്കെ രേഖകളാണു വേണ്ടത് എപ്പോഴാണു വരേണ്ടത് പിന്നെ എന്തൊക്കെ ആവശ്യമുണ്ടാവും ആധാർ കാർഡ് അങ്ങനത്തെ പോലത്തെ എന്തൊക്കെ ആവശ്യമുണ്ടാവും പിന്നെ അ ഹോസ്പിറ്റലലിേക്കു പോകേണ്ട ആവശ്യമുണ്ടോ ഇപ്പോള് ജനിച്ച ഹോസ്പിറ്റലില് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണ്ട ആവശ്യമുണ്ടോ എന്തൊക്കെ രേഖകളാണു വേണ്ടത് അതിന് എത്ര ചെലവു വരും അതുപോലെ എന്തൊക്കെ ആവശ്യമുണ്ട് പിന്നെ എന്താണ് ആശുപത്രിയുടെ പേരുര് മാറ്റി വെട്ടിത്തിരുത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ അ പിന്നെ ഒരുപാട് രേഖകളുടെ ആവശ്യമുണ്ടോ ഇനി പുതുതായി എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ എന്താണ് അ ഫോട്ടോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആധാർ കാർഡ് അതുപോലത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അതിന് എന്താണ് എന്തൊക്കെ വേണമെന്ന് അറിയാൻ അറിയാനായിരുന്നു ഓക്കെ താങ്ക്യൂ